സംസ്ഥാനത്തെ ഗതാഗതം എന്ന് പറയുന്നത് വളരെ മോശമാണ് നമുക്കങ്ങനെ എപ്പോഴും കംപ്ലയിൻറ്റുകള് എപ്പോഴും അപകടങ്ങള് നട നടക്കുന്നൊരു സാഹചര്യം കൂടെയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് അങ്ങനെ നമ്മള് കേരളത്തിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യയിൽ മൊത്തവും ഒട്ടാകെ അങ്ങനത്തൊരു സാഹചര്യമാണ് എന്ന് പറയുമ്പോൾ കാലാവസ്ഥയായിരിക്കാം ചിലപ്പം നമ്മള് നടത്തുന്ന പണിയുടെ മോശമായിരിക്കാം ആയതുകൊണ്ടും എന്ത് കൊണ്ടുതന്നെ ആയാലും നമ്മുടെ ഗതാഗതം വളരെ മോശമാണ് നീണ്ട നീണ്ട യാത്ര ചെലവ് യാത്ര ചെലവെന്നു പറയുന്നത് ഇപ്പോൾ ട്രെയിനായാലും ബസ്സിനായാലും അതിൻ്റെതായ ചെലവുകളുണ്ട് നമ്മുടെ പെട്രോള് വിലയും നമ്മള് പരിഗണിക്കണം ഇതിലൂടെ ജീവിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട് അപ്പോൾ അവരുടെ സാഹചര്യം കൂടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മുടെ ഒരു കൊടുക്കുന്ന അവർക്ക് പണം കൂടുതലാണോ കുറവാണോ എന്നൊക്കെ പറയാൻ പറ്റില്ല അത് ഓരോത്തരുടെ ഇതിനനുസരിച്ചിരിക്കും അതേപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ആയാലും ഇന്ത്യയുടേതായാലും എല്ലായിടത്തും ഒരു ഇതുണ്ടാവും ഒരു പർട്ടിക്കുലറായിട്ടു ഒരോ കാര്യങ്ങളുണ്ടാവും അവരുടെയൊരു ചെലവും അവർ കാര്യങ്ങളും യാത്ര എന്നു പറയുന്നതൊരിക്കലും മറ്റു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് പോകുന്നതല്ല ഇപ്പോൾ ഡെയിലിയായിട്ടു യാത്ര ചെയ്യുന്ന എത്രപേരുണ്ട് ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഡെയിലി യാത്ര ചെയുന്ന ആൾക്കാരെയാണ് ഇപ്പോൾ നമ്മള് വീട്ടിൽ നിന്നും ജോലി സ്ഥലത്തേക്ക് പോകുന്നു പിന്നെ പഠിക്കാനായിട്ട് വിദ്യാർഥികൾ പോകുന്നു അങ്ങനെ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയൊരു കൺസെഷൻ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഡെയിലി പോകുന്നവർക്കു വേണ്ടിയുള്ള കൺസെഷൻ നമ്മള് കൊടുക്കുന്നുണ്ട് പക്ഷെ ആ ഒരു കൊടുക്കുന്നതിന് നമ്മളിൽ ഇപ്പോൾ ഒരു ടാക്സ് കൊടുക്കുന്നതിനുള്ള ഒരു ഇത് നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല ഇപ്പം നമ്മള് യാത്ര ചെയ്യുന്ന റോഡുകളായാലും വളരെയധികം മോശമായി വളരെ ഒട്ടും ഇപ്പോൾ വാഹനം ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ റോഡുകൾ ഇപ്പോൾ കിടക്കുന്നത് അതുകൊണ്ടു തന്നെ നമ്മൾ കൊടുക്കുന്ന ടാക്സിന് ഒരു വിലയില്ലാതാ പോലെയാണ് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നാറുള്ളത് അത് യാത്ര ചെലവ് ഒരിക്കലും കൂടുതലോ കുറവോ നമുക്ക് പറയാൻ പറ്റില്ല അത് വേറൊരു പെട്രോളും മറ്റു കാര്യങ്ങളുമനുസരിച്ചിരിക്കും അതിൻ്റെ കാര്യങ്ങളും നമുക്ക് അതിലിപ്പോൾ ഇന്നത് കൂടുതലാണ് കുറവാണ് ഒന്നും പറയാൻ പറ്റില്ല ട്രെയിനിൽ പോകുന്നവർക്ക് എപ്പഴും ട്രെയിനായിരിക്കും എപ്പഴും ലാഭകരമായി തോന്നുന്നുണ്ടാവുക ബസിൽ പോകുന്നവർക്ക് എപ്പോഴും ബസ്സിൽ പോകുന്നതായിരിക്കും ലാഭകരമായത് എന്ന് അങ്ങനെയൊരു ചെലവ് നമുക്ക് കൂടുതലുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല